എന്റെ വീട്ടിലിപ്പോള് അധികം പൂക്കള് ഇല്ല നല്ല ഒരു രീതിയിൽ ഒരു പൂന്തോട്ടം നിര്മ്മിക്കണമെങ്കിൽ ഒരു പ നല്ല സൈസിലെ ചെടികളും മറ്റുവായിട്ട് ചട്ടികളും കൂടുതൽ നല്ല രീതിയിൽ ഇപ്പോഴത്തെ മോഡലിൽ വെറൈറ്റിസായിട്ട് ചെടികള് നിര്മ്മിക്കണമെങ്കിലും പൂന്തോട്ടം നിര്മ്മിക്കണമെങ്കിലും അതിന് ഒരു പത്ത് ഇരുപതിനായിരം രൂപായെങ്കിലും കുറഞ്ഞത് ചിലവാകുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ